ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിലകല്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് പലരുടെയും ഉത്തരവും സമ്പത്ത് വീട് കുടുംബം അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വിലകല്പിക്കുന്നത് ഒരു ആരോഗ്യം തന്നെയാണ് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കില് ബാക്കി എന്തും നേടിയെടിക്കാവുന്നതേയുള്ളൂ ഒര് ആരോഗ്യമായ ഒരു ജീവിതം എന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ശാരീരികമായും മാനസികമായും നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മറ്റു എല്ലാ കാര്യങ്ങളും സമ്പത്താണെങ്കിലും കുടുംമ്പാണെങ്കിലും എല്ലാം വളരെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും അത് കാരണം എല്ലാവരും വളരെ ആരോഗ്യവാനായിട്ടാണ് ജീവിക്കാൻ ആണ് ശ്രമിക്കേണ്ടത് ആരോഗ്യം എന്നത് നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്ന ഒന്നല്ല ആരോഗ്യമായി ജീവിക്കണമെങ്കിലും നമ്മൾ നല്ലോണം കഷ്ട്ടപ്പെടണം നല്ല ജീവിത ശൈലി നല്ല ആഹാരം മുതലായവയിലൂടെയാണ് നമുക്ക് നല്ല ആരോഗ്യം ലഭിക്കുകയുള്ളു സമാധാനമായ ജീവിതം ഉണ്ടെങ്കിലേ നമുക്ക് നല്ല മാനസികാരോഗ്യം ലഭിക്കുകയുള്ളു